പിന്നെ പുല്ല് റൊട്ടേറ്റ് ചെയ്യാനും കച്ചി ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ കുറെ സാധനങ്ങൾ കൊള്ളുന്നതിനാൽ നമുക്ക് ഈ ഈസിയും എളുപ്പവും ആയിട്ടാണ് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത്